ആ ഹലോ അർച്ചന മാഡം അല്ലേ ആ ഞാൻ മാഡം മാഡം ഞാൻ സിക്സ് ബി പഠിക്കുന്ന അക്ഷയുടെ അമ്മ ആയിരുന്നു ആ മാം ഇപ്പം ഈ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ മാത്സിനാണെങ്കിൽ തീരെ മാർക്ക് ഇല്ല മാഡം ആ ഇംഗ്ലീഷിനും ഹിന്ദിക്കും ബാക്കി സയൻസിന് ഒക്കെ അത്യാവശ്യം മാർക്കുണ്ട് ഇവിഎസ്സിന് ഒക്കെ പക്ഷെ ഈ മാത്സിന് അങ്ങ് തീരെ ജസ്റ്റ് പാസ് ആയിട്ടേ ഉള്ളൂ പതിനെട്ട് മാർക്കേ ഉള്ളൂ അമ്പതിൽ നിന്ന് ഇനി ഇപ്പോൾ എന്ത് ചെയ്യും ആ അവൻ ക്ലാസ് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടോ ആണല്ലേ ഇനി ഇപ്പം ഞാൻ അവനെ വല്ല ട്യൂഷനൊക്കെ വല്ലതും വിടണോ മാത്സിന് വേണ്ടി മാഡം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഓൺലൈൻ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ആ അപ്പം എനിക്ക് ആണെങ്കിൽ ഇവനെ അങ്ങനെ അധികം ശ്രദ്ധിക്കാനും പറ്റുന്നില്ല ഇവൻ സാധാരണ കഴിഞ്ഞ തവണ ഒക്കെ അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എക്സാമിനൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഇത്തവണയും നല്ല മാർക്ക് കാണുമായിരിക്കും എന്ന് അതാണ് ഞാൻ പിന്നെ അങ്ങ് ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കാഞ്ഞത് അവൻ തന്നെ ആണ് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കൊണ്ടിരുന്നത് ട്യൂഷൻ ഒന്നും ഇത് വരെ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ആ അപ്പോൾ അങ്ങനെ പോവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവന് ആ ഇത്രയും മാർക്ക് കുറഞ്ഞപ്പോഴേക്ക് എനിക്ക് അങ്ങ് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി അതാണ് ഞാൻ മാമിനെ വിളിച്ച് ചോദിച്ചത് ബാക്കി സബ്ജക്റ്റ് ഒക്കെ വലിയ കുഴപ്പം ഒട്ടും ഇല്ല താനും ബാക്കി ആ അത് ആണ് എനിക്ക് ടെൻഷൻ ആയത് ഇനി ഇപ്പം മാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ മാം അവനെ പ്രത്യേകം ആയിട്ട്

ഓക്കെ ആ ആ ആ എങ്കിൽ ശരി എന്നാൽ മാം ഓക്കെ താങ്ക് യു ആ അക്ഷയെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ശരി എന്നാൽ ഓക്കെ ആ